ടെക്നോളജിയിൽ നിന്നും പുറം ലോകത്ത് നിന്നും വിട്ടു നിൽക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഞാൻ പോയത് നെല്ലിയാമ്പതിക്കാണ് നെല്ലിയാമ്പതിയെന്നു പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് നമുക്ക് സ്ട്രെസ്സിനിടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ഏതാണെന്നു ചോദിച്ചാൽ ഞാൻ പറയുന്നു നെല്ലിയാമ്പതി തന്നെയാണ് ഇവിടെ നിന്ന് അവിടെ പോയി അതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ പോയി അവിടെ നിന്നൊരു കയറ്റമുണ്ട് മലനിരകളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് ആലം നെല്ലിയാമ്പതി എന്ന് പറയുന്നത് അവിടെ ഞങ്ങൾ കുറച്ചു ട്രാവൽ ചെയ്തു ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് നടന്നു പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു പിന്നെ കുറേ സിംഹവാലൻ കുരങ്ങുകളിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഉള്ളിലോട്ട് കുറേപ്പോയി ഞാനല്ലാതെ കുറേപേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിലോട്ട് കുറേ നടന്നു മലേൻ്റെ മലേൻ്റെ സൈഡൊക്കെ പോകുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ഒക്കെ ആസ്വദിച്ച് പിന്നെയും അവിടെ നിന്നു കുറേ നടന്ന് ആ അറ്റം വരെ നെല്ലിയാമ്പതിൻ്റെ അറ്റം വരെ ഞങ്ങൾ പോയി കുറേ കുറേനേരം നിന്നു ആ നമ്മൾക്ക് ആ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അതെനിക്ക് അവിടെ നിന്നും ഫീൽ ചെയ്തു ഞാൻ മാത്രമായിരുന്നില്ല എന്നെപ്പോലെ കുറേപ്പേർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നപ്പോൾ എല്ലാവർക്കൊരു റിലാക്സാണ് തോന്നിയത് നമ്മൾ കറക്റ്റ് അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഈ ഈ പാലക്കാടെന്നുള്ള ഒരു ഗ്രാമം തന്നെ നമുക്ക് മൊത്തത്തിലത് കാണാൻ പറ്റുന്നതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് അതെന്നു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാറ്റും അതേപോലെ തന്നെ ആ ഒരു റിലാക്സേഷനുള്ള ഒരു പ്ലേസ് തന്നെയാണ് അവിടെ കുറേ ആനകൾ അവിടെനിന്ന് മേലോട്ട് പോയി പറഞ്ഞാൽ കുറേ മലകൾ കാണാൻ സാധിക്കും അവിടെ നിന്ന് ഞങ്ങൾ ജീപ്പിലൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ജീപ്പിൽ ഒരു ഒരു പത്ത് പതിനഞ്ച് പേരായിട്ട് ട്രാവൽ ചെയ്തു അവിടെ നിന്ന് മേലോട്ടുള്ളൊരു മലയിലേക്ക് അവർ കൂട്ടിയിട്ട് പോയി അവിടെ നിന്ന് കുറേ നേരം പ്രകൃതി ഭംഗി നോക്കി കുറേ നേരം നിന്നു കുറേ മരങ്ങൾ ചുറ്റും മരങ്ങൾ കുറേ ഉണ്ടായിരുന്നു അത് നോക്കി കുറേ അങ്ങനെ നിന്നു പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു ഫോട്ടോക്കെ എടുത്ത് കുറേ ആൾക്കാരിനെയൊക്കെ കണ്ടു അവിടെ നിന്ന് എന്നിട്ട് അവിടെ ഉള്ള ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസൊക്കെ കുറേ പറഞ്ഞു അവിടെ ആന ഇറങ്ങാറുണ്ട് പുലി ഇറങ്ങാറുണ്ടെന്നൊക്കെ പറഞ്ഞു കുറേ അവരുടെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞു തന്നു അവിടെ നിന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ ജീപ്പിൽത്തന്നെ ആയിരുന്നു പോയത് അവിടെ നിന്നു തിരിച്ചു വരുന്ന വഴിക്ക് ജീപ്പൊക്കെ കുറച്ച് പഞ്ചറായി അവിടെ നിന്നു വേറെ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരെയൊക്കെ വന്നു പിന്നെ അവിടെ നിന്നു നേരെ താഴോട്ട് വന്ന് താഴോട്ട് വന്ന് ഞങ്ങളൊരു പ്ലേസൊക്കെ കണ്ടു പിടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ്ഡൊക്കെ കഴിച്ച് കണ്ടു മുട്ടിയവർ തമ്മിൽ ഫുഡ്ഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ച് ആരും ആ ഞങ്ങൾ തമ്മിൽ ആരായിട്ടും ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ നന്നായി സംസാരിക്കുകയും അപ്പം തന്നെ നമുക്ക് പകുതി നമ്മളുടെ മൈൻഡിലുള്ള സ്ട്രെസ്സൊക്കെ പോകുകയും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി നല്ലൊരു നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു നെല്ലിയാമ്പതി എന്ന് പറയുന്നത് അവിടെ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ നമ്മൾ പോയിരുന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയും അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി എന്നു പറയുന്നത് അവിടെനിന്നു ഞങ്ങൾ നേരെ വന്നു നേരെ തിരിച്ച് വരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അവിടെ നിന്നു പോകണ്ട എന്നൊരു മൈൻഡിലായിരുന്നു ഇരുന്നത് അത്രയും നല്ലൊരു സ്ഥലം ഏതാണെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഒരേയൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി എന്നത്